ഒരിക്കലും അവരുടെ ഭാഷയായിട്ട് നമ്മുടെ ഭാഷ ബന്ധപ്പെട്ടിരിക്കുന്നില്ല അവരുടെ ഭാഷ നമുക്ക് മനസിലാക്കാൻ തന്നെ ഇതാണ് നമ്മുടെ ഭാഷ പിന്നെ മറ്റു ഭാഷയിൽ നിന്ന് ആ ഭാഷകളുമായിട്ട് ഒരുതരത്തിലും ബന്ധിക്കപ്പെടുന്നില്ല കാരണം കുറച്ചൊരു പിന്നെ ഭാഷയായിട്ട് അടുത്ത് വരുന്നതാണ് തമിഴ് നാട്ടിലെ ഭാഷ അല്ലാതെ ബംഗാളികളുടെ ഭാഷയായിട്ടും നമ്മുടെ ഭാഷ എന്തും എന്ത് അടുത്താണ് ഉള്ളത് എന്ത് ബന്ധമാണുള്ളത് ഒരു ബന്ധവും ഇല്ല നമ്മുടെ ഭാഷ അവരുടെ ഏതെങ്കിലും വാക്കുമായിട്ട് ബന്ധം വരുന്നുണ്ടോ എ അവര് പറയുന്നത് എന്തെങ്കിലും നമുക്ക് മനസിലാക്കാൻ പറ്റുന്നുണ്ടോ സാധാരണ മലയാളി മലയാളികൾക്ക് ഏത് ഭാഷയും പഠിക്കാം അവർക്ക് അവരുടെ ഭാഷയായിട്ട് എന്ത് ബന്ധമാണ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണ് അത് ഈ ബോഡോയോ ബാംഗാളിയോ തുടങ്ങിയ ഒരു ഭാഷയായിട്ടും ഒരു മാറ്റവും ഒരു ബന്ധവും ഇല്ല പിന്നേയും കുറച്ച് ബന്ധം വരുന്നത് കർണ്ണാടകയായിട്ട് ചെറിയൊരു ബന്ധം വരുന്നുണ്ട് അതേപോലെത്തന്നെ തമിഴ് ഭാഷയായിട്ട് മലയാള ഭാഷയ്ക്ക് ചെ അവിടെ ഇവിടെ ഒക്കെയായിട്ട് ചെറിയ ചെറിയ ലിങ്കുണ്ട് അല്ലാതെ ഹിന്ദി പോലുള്ള ബംഗാളി മറാഠി ബോഡോ അങ്ങനയൊള്ള ഒരു ഭാഷയായിട്ടും യാതോരു വിധ ബന്ധവും ഇല്ല എനിക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടില്ല ഒരിക്കലും കേട്ടോ